എന്റെ വീട്ടിലൊക്കെ എല്ലാം ആഘോഷിക്കും അത്യാവശ്യം എല്ലാം ആഘോഷിക്കാറുണ്ട് അതിപ്പോൾ എന്റെ പിറന്നാളാണെങ്കിലും അതായത് ഒരു കേക്ക് മുറിക്കും കേക്ക് മുറിക്കാത്ത പിറന്നാൾ വളരെ വളരെ കുറവാണ് പിന്നെ ഗിഫ്റ്റ് ആണെങ്കിലും എന്റെ അമ്മ ആണെങ്കിലും എനിക്ക് കൊണ്ടുത്തരും എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും ഡ്രസ്സ് കിട്ടാത്ത പിറന്നാളുകൾ വളരെ കുറവാണ് ഹസ്ബന്റ് ആണെങ്കിലും എന്നും കൊണ്ടുത്തരും ഡ്രസ്സ് ഒക്കെ കൊണ്ടുത്തരും പിന്നെ കല്ല്യാണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് നല്ല ആർഭാടമാക്കിയിട്ട് തന്നെ ആണ് കല്ല്യാണം നടത്തിയത് നല്ല അടിപൊളി ആയിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ നല്ല സദ്യ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു എൻഗേജ്മെന്റിന് എൻഗേജ്മെന്റിന് ആണെങ്കിലും കല്ല്യാണത്തിന് ആണെങ്കിലും പത്ത് ആയിരം പേരുടെ സദ്യ ആയിരുന്നു പിന്നെ എന്റെ കല്യാണം നടന്നത് പിന്നെ വള്ളിയൂർക്കാവ് അമ്പലത്തിൽ വച്ചാണ് അത് നല്ല അടിപൊളി ആയിട്ട് തന്നെ നടന്നത് കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ആയിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് ആഘോഷിച്ചത് അതായത് നല്ല അടിപൊളി കല്ല്യാണം എന്നു പറഞ്ഞാൽ അടിപൊളി കല്ല്യാണം ആയിരുന്നു ഇപ്പോൾ നമുക്ക് പറയാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല ഇപ്പോൾ പിറന്നാൾ ആണെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ കഴിക്കാറുണ്ട് പിന്നെ എല്ലാവരും ആയിട്ട് കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒത്ത് ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ നടത്താറുണ്ട്